ഉത്സവങ്ങളുടെ ഭാഗമായി ദൈവ വിഗ്രഹങ്ങൾ ഉണ്ടാക്കുന്നതായി പറയുമ്പോൾ പ്രധാനമായും ഓർമ്മ വരുന്നത് ഓണമാണ് ഓണത്തിൻ്റെ ഭാഗമായി നമ്മൾ മാവേലി എന്ന സങ്കല്പത്തിൽ മാവേലി ഉണ്ടാക്കുകയും അതിനോടൊപ്പം കൊച്ചു കൊച്ചു ദൈവങ്ങളെ ഉണ്ടാക്കുകയും മണ്ണുകൊണ്ട് കുഴച്ച് ഉണ്ടാക്കുകയും ചെയ്യുന്നു അത് നല്ല രസമുള്ള ഒരു പരുപാടിയാണ് നമ്മൾ മണ്ണ് വെട്ടികൊണ്ടുവന്ന് അതു കുഴച്ച് പാകപ്പെടുത്തി അതിൽ നിന്ന് ഓരോ ആകൃതികൾ ഉണ്ടാക്കിയെടുക്കുക എന്നു പറയുന്നത് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരുപാട് വിനോദം തരുന്ന ഒരു പ്രവർത്തി തന്നെയാണ് പിന്നെ മറ്റു കാര്യങ്ങൾ ആണെങ്കിൽ ഇതേ സമയത്തു തന്നെ ഈ മണ്ണുകൊണ്ട് കുട്ടികൾക്കു വേണ്ടി ചെറിയ ചെറിയ കളിപ്പാട്ടങ്ങൾ പോലുള്ള രൂപങ്ങളും എല്ലാം ഉണ്ടാക്കി വെയ്ക്കാറുണ്ട്